ഞാൻ താണ്ടിയ വഴികളെന്നുവച്ചുകഴിഞ്ഞാല് അതു ഞങ്ങളുടെ വീടിൻ്റെ അതിലേ തന്നെയുള്ള റോഡാണ് തിരുനെല്ലി കാട്ടിക്കുളം ടു തിരുനെല്ലി അമ്പലം അത് ഇപ്പോള് ടാറൊക്കെ ചെയ്ത് റോഡൊക്കെയൊന്ന് സെറ്റായിട്ടുണ്ട് ആദ്യം ഭയങ്കര മോശമായിരുന്നു റോഡ് അപ്പോള് അതു ഭയങ്കര സീനായിരുന്നു എനിക്ക് രണ്ട് ആക്സിഡന്റ് പറ്റിയതാണ് അ ഈ റോഡ് പണി തുടങ്ങിവച്ചിട്ട് പിന്നെ നിന്നുപോയതാണ് അത് നിന്നുപോയെന്നുവച്ചു കഴിഞ്ഞാള് അയിനകത്തുനിന്നു ചരല് കാര്യങ്ങളൊക്കെ വന്നുപെട്ടിട്ട് അങ്ങനെയാണ് രണ്ട് ആക്സിഡന്റും പറ്റിയത് അങ്ങനത്തെ അല്ലാണ്ട് വേറെ പാതകളൊന്നും വെല്ലുവിളി നിറഞ്ഞ പാതകളൊന്നും ഇപ്പോള് വേറെ ഇല്ല ആകെ വന്നിട്ടുള്ളത് വീടിനടുത്തുള്ള തൊട്ടുതാഴെയുള്ള വഴി മാത്രമേ ഉള്ളൂ അതിപ്പോള് കുഴപ്പമൊന്നുമില്ല ആദ്യം താറൊന്നും ചെയ്യാണ്ടാകെ കുറച്ചു വിഷയമായിട്ടു കിടക്കുകയായിരുന്നു വേറെ അതിനകത്ത് വേറെ പാതങ്ങളൊന്നും ഛെ വേറെ പാതകളൊന്നും എനിക്കങ്ങനെ വലിയ പരിചയമില്ല പോയതില് വച്ചിട്ടാകെ ഈ റോഡ് മാത്രമേ എനിക്കു വലിയ കുറച്ചു ടാസ്ക്കായിട്ടു തോന്നിയിട്ടുള്ളൂ പിന്നെ കുറേ പോക്കറ്റ് റോഡുകളുണ്ട് അതില് കുറച്ച് അതിലും അതിലേ പോവാണെങ്കിലും കുറച്ച് സീനാണ് അല്ലാണ്ട് വേറെ പാതകളൊന്നുമില്ല വേറെ ഇത്രയൊക്കെയേ ഈ വഴി മാത്രമേ ഉള്ളൂ